എനിക്കിപ്പോൾ യാത്ര പോകാനാണ് ആണെങ്കില് എനിക്ക് ബന്ധുക്കളുടെ വീട്ടിൽ പോകാനാണിഷ്ടം എനിക്കിഷ്ടപ്പെട്ട ബന്ധുക്കളുടെ വീട്ടിൽ പോകാനാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സമയത്ത് ഞമ്മൾക്ക് പോയി കാണാനും സംസാരിക്കാനും ഒപ്പരമിരുന്ന് ഭക്ഷണം കഴിക്കാനും ബന്ധുക്കളുണ്ടെങ്കിൽ അതൊരു അതൊരു നല്ലൊരു നല്ലൊരു സന്തോഷം ഉള്ളൊരു സന്ദർഭം തന്നെയായിരിക്കും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ നമ്മൾക്കിപ്പോൾ വീട്ടിൽതന്നെ ഇരിക്കുന്ന നമ്മളാണെങ്കില് ഇപ്പോൾ കുറച്ചു ദൂരെ ഉള്ളൊരു ചേച്ചിൻ്റെയോ അല്ലെങ്കില് ചേട്ടൻ്റെ ഭാര്യേൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലായിക്കോട്ടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയാല് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അതുപോലെ ചരിത്ര സ്ഥലങ്ങളില് പോകാനും ഇഷ്ടമാണ് പക്ഷെ കുടുതലും എനിക്കിങ്ങനെ വിനോദ ഈ കടൽപ്പുറത്ത് ബീച്ചില് അങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളോടൊക്കെക്കൂടി കടൽപ്പുറത്തൊക്കെ പോയി കളിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ അതുപോലെ ചില നേർച്ച സ്ഥലത്ത് പോകാനും ഇഷ്ടമാണ് കാണാനും അമ്പലങ്ങളും പള്ളികളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും അവിടെപ്പോയി വെറുതേ നടക്കാനും അതുപോലെ ഫോറസ്റ്റിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മൃഗങ്ങളെ കാണുന്ന ഈ മുത്തങ്ങാ ഫോറസ്റ്റ് അതിലൂടെയൊക്കെയിപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണുമല്ലോ പിന്നെ മൃഗങ്ങളെ കാണാനും പിന്നെ ഇപ്പം നമ്മള് കണ്ട മൃഗങ്ങളെ തന്നെ കാണുമ്പോൾ തന്നെയൊരു സന്തോഷമല്ലേ പെട്ടന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെയൊക്കെ കൂട്ടിപ്പോയി അവർക്ക് കാണിച്ചുകൊടുക്കാനും അതൊക്കെ ഒരു രസമാണല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്